ഹലോ ഞാന് ഇന്നലെ ഞാന് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു ടൂര് പോവാന് വേണ്ടിയിട്ട് ആ അത് ഇതുവരെ ആയിട്ടു എത്തിയിട്ടില്ല എന്താ സംഭവം എന്ന് അറിയില്ല ഇതുവരെ ആയിട്ടും ഇവിടെ എത്തിയിട്ടില്ല ആ അതുകൊണ്ട് ഞങ്ങള് അത് റദ്ദാക്കുവാണ് കാരണം നമുക്ക് കറക്റ്റ് ടൈമിനു പോകണ്ടൊരു ആവശ്യമുണ്ട് അല്ല അതല്ല നിങ്ങള് കറക്റ്റ് സമയത്ത് വരാന്നു പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ഒന്നാമത് അത്യാവശ്യയിട്ടു പോന്നതാണല്ലോ നിങ്ങള് കറക്റ്റ് ഒരു സമയം പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ സമയം എന്നാണ് ഇന്നലെ പറഞ്ഞത് നിങ്ങള് പറയുന്ന ടൈമിനു എപ്പോൾ വേണെങ്കിലും പോകാന്നാണ് പറഞ്ഞത് പക്ഷെ നിങ്ങള് ആ സമയം പറഞ്ഞിട്ടും നിങ്ങള് ഇതുവരെ എത്തിയിട്ടില്ല നിങ്ങളുടെ ഡ്രൈവറ് അല്ല അതിലൊന്നും കാര്യമില്ലല്ലോ നമ്മള് ഒന്ന് ഒന്ന് ഇത്ര ആള്ക്കാരുടെ ടൈമ് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങള് ശ്രദ്ധിക്കണം ആയിരുന്നു ഇത് ഇത്ര ആളെയും എന്താ പറയുക ഞാന് ഇത്ര ആളെ ആക്കിയിട്ടൊരു ടൂറ് പ്ലാന് ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങളുടെ ഡ്രൈവര് കറക്റ്റ് ടൈമില് എത്തിയിട്ടില്ലെങ്കില് നമ്മളുടെ ആ ട്രിപ്പ് ക്യാന്സല് ചെയ്യുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ അല്ല സാധാരണ എൻ്റെ വായിൽ നിന്ന് ഇതല്ല വരുക അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഇല്ല ഇല്ല ഞങ്ങളിനി പോകുന്നില്ല ക്യാന്സല് ചെയ്തു ഓക്കേ എന്നാല്